ഹലോ ഹലോ ഞാനേ ഫുഡ് ഓർഡറ് ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരി ഞങ്ങള് ഫാമിലി ആയിട്ട് ട്രിപ്പ് വന്നതാണേ അപ്പ അവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പ നമുക്ക് മൂന്ന് നേരം ഫുഡ് വേണായിരുന്നു ഡെലിവറി ചെയ്യില്ലേ മ്മ്മ് രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് എന്താണ് എന്താ ഇണ്ടാവുക

ആ പിൻ ഉച്ചക്കോ

ചോറിനെങ്ങനെയാ റേറ്റൊക്കെ വരുന്നേ ഒരു ചോറിന് എത്രയാ വരുന്നേ ആ ആ ആ ആ

എക്സ്ട്രാ പൈസ വേണം

ആ ആ

എനിക്ക് നാളത്തേക്കായിരുന്നു വേണ്ടത് രാവിലത്തേക്ക് കൊണ്ട് പോരെ എന്നിട്ട് ഉച്ചക്ക് എങ്ങനെയാ വേണ്ടതന്ന് അനുസരിച്ചിട്ട് പറയാം രാവിലെ പുട്ടും മൊട്ടക്കറിം മതി

പാൽച്ചായ മതി എട്ട് പേർക്കാണ് ആ മതി മതി